പണ്ട് കാലത്തൊരു ഹോബിയായിരുന്നു നാണയ ശേഖരണം നമ്മുടെ അച്ഛനമ്മമാരൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന നാണയങ്ങളൊക്കെ ശേഖരിക്കുകയെന്നു പറഞ്ഞത് ഇഷ്ടപ്പെട്ടൊരു വിനോദമായിരുന്നു അതിൻറ്റകത്ത് അവരി അണകളൊക്കെ ഉപയോഗിക്കുമായിരുന്നു ഇടയ്ക്ക് റൗണ്ട് ഷേപ്പിലുള്ളതും അല്ലാതെ ഡയമണ്ട് ഷേപ്പിലുള്ളതുമായ പലതരം അണകളൊക്കെ ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കുന്നതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ചെമ്പ് കളറിലുള്ളതും അതു പോലെ വെള്ള കളറിലുള്ളതുമായ നാണയങ്ങളൊക്കെ ഒത്തിരി സൂക്ഷിച്ച് വെച്ച് സൂക്ഷിച്ച് ഒത്തിരുന്നാളതിങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന ചെറുപ്പകാലങ്ങളിലുള്ളൊരു ഹോബിയായിരുന്നു നല്ല ഭംഗിയുള്ള നാണയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻറ്റകത്ത് അതു പോലെ തന്നെ ചെമ്പ് കളറിലുള്ള നാണയങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് അതിൽ നിന്നും മോതിരം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് അങ്ങനെയുള്ളൊരു ഉപയോഗങ്ങളൊക്കെ അന്ന് ഉണ്ടായിരുന്നു പിന്നീട് നാണയങ്ങളൊക്കെ ആ അണകൾ അങ്ങനെ ഉള്ള സാധനങ്ങൾ അങ്ങനെയുള്ള നാണയങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ അതായത് ആ നാണയങ്ങളൊന്നും അതിന് വാല്യു ഇല്ലാതായി കഴിഞ്ഞപ്പോൾ നമ്മളത് ഇങ്ങനെ ഒരു ഡെപ്പിയിലിട്ടിങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് നടുക്ക് റൗണ്ട് ഷേപ്പിലുള്ളതും നടുക്ക് ഒരു ഹോളുള്ളതുമായ നാണയങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു പല വാല്യൂ ഉള്ളതുമായ നാണയങ്ങളും ഉണ്ടായിരുന്നു അതിനു ശേഷം അഞ്ച് പൈസ പത്ത് പൈസ ഇരുപത് പൈസ അൻപത് പൈസ ഇരുപത്തഞ്ച് പൈസ അങ്ങനെയുള്ള നാണയങ്ങളാണ് അന്ന് അതിന് വാല്യൂ ഉണ്ടായിരുന്നു അഞ്ച് പൈസ കൊടുത്താൽ ധാരാളം ഒരു പെൻസിലും മിഠായിയും ഒക്കെ കിട്ടുന്നൊരു കാലം ഉണ്ടായിരുന്നു അന്ന് നാണയങ്ങൾ സൂക്ഷിച്ച് വെച്ചു ഇന്നിപ്പം എല്ലാവരും സൂക്ഷിക്കുന്നത് അഞ്ച് പൈസ പത്ത് പൈസ അങ്ങനെയുള്ളതൊക്കെയാണ് അതിനിപ്പോൾ വാല്യൂ ഇല്ലാണ്ടായിട്ടുണ്ട് അഞ്ച് പൈസ അലൂമിനിയത്തിൻ്റെ അഞ്ച് പൈസകൾ അതിൻ്റെ ഒരു ഷേപ്പൊക്കെ ഒരു ചതുരം ഒരു ചതുരത്തിൻ്റെ പോലത്തൊരു ഷേപ്പൊക്കെ ആയിരുന്നന്ന് അതു പോലെ പത്ത് പൈസ ഇരുപത് പൈസ അങ്ങനെയുള്ള നാണയങ്ങളൊക്കെ ഒത്തിരി നാളിങ്ങനെ സൂക്ഷിച്ചു വെച്ചു കൊണ്ടിരുന്നിട്ടുണ്ട് അതിനു ശേഷം ഇരുപത്തഞ്ച് പൈസ ഇരുപത്തഞ്ച് പൈസക്കൊക്കെ ഇപ്പം വാല്യൂ ഇല്ലാണ്ടായിട്ടുണ്ട് ഇരുപത്തഞ്ച് പൈസയും അൻപത് പൈസയും ഇപ്പം പത്ത് രൂപ വരെ പത്ത് രൂപയുടെ തുട്ടുകളുണ്ട് പത്ത് രൂപയുടെ തുട്ടുകളാണെങ്കിലും അതിൻ്റെ റൗണ്ടിൽ നിന്ന് ആ പത്ത് രൂപ സ്റ്റീലിൻ്റെ പത്ത് രൂപയും അതിൻ്റെ ഉള്ളിൽ ചെമ്പിൻ്റെ പത്ത് രൂപയും അങ്ങനെയൊക്കെയാണ് നാണയങ്ങളുള്ളത് പിന്നീട് ഇരുപത് രൂപയുടെ നാണയങ്ങളിപ്പം ഇറങ്ങിയിട്ടുണ്ട് ഇരുപത് രൂപയുടെ നാണയങ്ങളാണെങ്കിലും കിട്ടി കഴിയുമ്പോൾ നല്ലൊരു ആകാംക്ഷയാണ് അത് സൂക്ഷിച്ചു വെക്കാനും ആർക്കും യാതൊരു എന്താവശ്യം ഉണ്ടെങ്കിലും അത് കൊടുക്കാതെ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു ടെൻഡൻസി ഇപ്പോഴും സോ അങ്ങനെയുള്ളൊരു പ്രവണതയുണ്ടിപ്പോഴും ഇരുപത് രൂപയൊക്കെ ആണെങ്കിലും നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാതെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് രൂപയാണെന്നുള്ള വിചാരത്തിൽ ന്നെ കടകളിലൊക്കെ പോയി അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പം അഞ്ച് ഇരുപത് രൂപ കൊടുത്തിട്ട് പത്ത് രൂപയാണെന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള അബദ്ധങ്ങളും ഇതിൻ്റെ ഇടയ്ക്ക് പറ്റാറുണ്ട് നാണയ ശേഖരണം അതു പോലെ തന്നെ പല രാജ്യങ്ങളിൽ നിന്നുള്ള നാണയങ്ങളും ശേഖരിക്കാറുണ്ട് ആരെങ്കിലൊക്കെ പുറത്തൊക്കെ പോയിട്ട് വന്നു കഴിയുമ്പോൾ അവർ അവർ കൊണ്ടു വരുന്ന നാണയങ്ങൾ സൗദിയിൽ നിന്നുള്ള നാണയങ്ങൾ കുവൈറ്റിൽ നിന്നൊക്കെ ഉള്ള നാണയങ്ങൾ അവർ നമ്മളെ കാണിക്കുവാനായിട്ട് അവരോരോ നാണയങ്ങളൊക്കെ കൊണ്ടു വരും നമുക്കത് സൂക്ഷിച്ചു വെക്കാനായിട്ടും തരാറുണ്ട് അതു പോലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള നാണയങ്ങളൊക്കെ വന്നാൽ അങ്ങനെ ഉള്ള നാണയങ്ങളും സൂക്ഷിച്ചു വെക്കാറുണ്ട് അതു പോലെ നാണയ ശേഖ ഇപ്പോഴും ആണെങ്കിലും പഴയ കാലത്തെ നാണയങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു അത്ഭുതമാണ് അത് കാണാനും മറ്റ് ചെറിയ കുട്ടികളെ അത് കാണിക്കുവാനും ഒക്കെ അവർക്കാണെങ്കിലും അവർ അത് കാണാനൊക്കെയായി ഒത്തിരി താല്പര്യമാണ് പണ്ട് കാലത്തുള്ള നമ്മുടെ അപ്പനപ്പുപ്പന്മാർ ഒക്കെ അവരുടെ ഒക്കെ ചെറുപ്പ കാലങ്ങളിൽ ഇങ്ങനെയുള്ള നാണയങ്ങളായിരുന്നു കിട്ടിയിരുന്നത് അവരൊരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്താൽ കിട്ടുന്ന ഈ ഒരു നാണയമാണ് ഈ അണയ്ക്കു വേണ്ടിയാണ് അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറമ്പിൽ കിളച്ച് അതു പോലെ മറ്റുള്ളവരുടെ പറമ്പിൽ കൂടെയൊക്കെ പോയി അവർ അദ്ധ്വാനിക്കുന്നത് ഈ ഒരു നാണയത്തിനു വേണ്ടിയാണ് ഈ അണ കൊണ്ട് കൊടുത്താൽ നമുക്കന്ന് അരി കിട്ടും മീൻ കിട്ടും പച്ചക്കറി കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളീ ഒരു നാണയത്ത് നാണയം കൊടുത്താൽ തന്നെ നമുക്കത് കിട്ടും എന്നൊക്കെ കൊച്ച് കുട്ടികളോടൊക്കെ പറയുമ്പം അവരൊക്കെ അത് ഒരു കഥ കേൾക്കുന്നതു പോലെ അവർക്ക് ഒരത്ഭുതാവഹമായിട്ട് അവർ അത് കേട്ടിരിക്കാറുണ്ട്